ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൈതീഹ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ വന്നത് തന്നെയാണ് അപ്പോൾ പണ്ടു കാലത്ത് വാസ്കോഡി ഗാമായെന്നു പറയുന്നൊരാൾ വന്നിട്ട് കാല് കുത്തിയത് കോഴിക്കോട് കാപ്പാട് ബീച്ചിലാണ് അതിൻ്റെ ശേഷമാണ് ഇയാൾ അവിടെനിന്ന് നമ്മുടെ രാജ്യത്തിനകത്ത് എന്താ പറയുക സംസ്ഥാനം കോഴിക്കോടൊക്കെ ആണെങ്കിലും വയനാടാണെങ്കിലും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എത്തിക്കാനൊക്കെ ഇന്ന് ഭാവിയിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു മനുഷ്യൻ തന്നെയാണ് കാരണം കുരുമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയനാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് എന്താ പറയുക ഓരോ സ്ഥലത്ത് എത്തിക്കാനും അതൊക്കെ എന്താ പറയുക ആൾക്കാരിലേക്ക് കളക്റ്റ് ചെയ്തിട്ട് ഇന്ന ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിക്കൊക്കെ എന്താ പറയുക കൊണ്ടുവന്ന് മുന്നോട്ട് കർഷകർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചൊരു വലിയ വ്യക്തിയാണ് അപ്പോൾ വാസ്കോഡഗാമയെന്നു പറയുമ്പോൾ ഒരു ബ്രിട്ടീഷ് ചതിയിലൂടെയാണെങ്കിലും ഒരുപാട് എന്താ പറയുക കർഷകർക്കൊക്കെ ഭയങ്കര മോശമായ രീതിയിലൊക്കെ കുറേ ഇതാക്കിയൊരു മനുഷ്യൻ തന്നെയായിരുന്നു അദ്ദേഹം അപ്പോൾ അങ്ങനെയൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ എന്താ പറയുക കോഴിക്കോട് കാപ്പാട് ബീച്ചിൻ്റെ ഒരിതാണ് പിന്നെ എന്താ പറയുക അവിടെ വേറെയും കുറേ ഐതീഹ്യങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുണ്ട്